എനിക്ക് ഈ ഓൾഡ് മെലഡി സോങ്ങാണ് ഒത്തിരി ഇഷ്ടം അത് തമിഴായാലും മലയാളമായാലും കേൾക്കും മെലഡി സോങ്ങിന് ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ കേൾക്കാനും ഇപ്പോഴത്തെ പാട്ടുകളെപ്പോലെയൊന്നുമല്ല വളരെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഏത് ഇതിനും ഏതൊരു നമുക്ക് ഇപ്പം നമ്മുടെ മൂഡ് സ്വിങ്ങ് ഉണ്ടാകുമല്ലോ ഓരോരുത്തർക്കും ചിലർ ഭയങ്കര ഹാപ്പിയായിരിക്കും ചിലർ ഭയങ്കര സേഡായിരിക്കും പക്ഷേ ആ അതിനൊക്കെ പറ്റിയിട്ടുള്ള അതിനൊക്കെ ആ ഒരു സിറ്റുവേഷനോക്കെ പറ്റിയ പാട്ടുകൾ ഓൾഡ് മെലഡി സോങ്ങുകൾ ഉണ്ടാകും അത് തമിഴും മലയാളവും ഒക്കെ കേൾക്കാറുണ്ട് ടി വിയിൽ കേൾക്കാറുണ്ട് ഹെഡ്സെറ്റ് വച്ച് കേൾക്കാറുണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്